ഞാനിവിടെ പറയാൻ പോവുന്നത് ഞാൻ ഈയിടയ്ക്ക് മേടിച്ചൊരു ബി എൽ ഡി സി ഫാനിൻ്റെ ഒരു റിവ്യൂ ആണ് അത് ഭയങ്കര ഒരു നല്ലൊരു ഫാനായിരുന്നു ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഒരു ഇമ്പെക്സിൻ്റെ ഒരു ബി എൽ ഡി സി ഫാനാണ് ഞാൻ വാങ്ങിച്ചത് മൂന്ന് ലീഫ് ഉള്ള ഒരു ഫാനായിരുന്നു ഒരു വൈറ്റ് കളറ് ഫാൻ ആണ് മേടിച്ചത് വെറുതെ ഹാളിലിടാൻ വേണ്ടീട്ടാണ് ഞാനാ ഒരു ഫാൻ മേടിച്ചത് ഈ ഒരു പ്രൈസിൽ ഈ ഒരു ഫാൻ ഭയങ്കര വെർത്തായിട്ടെനിക്ക് തോന്നി നമുക്കിപ്പോൾ സാധാരണ ഉള്ള ഫാനിനെ അപേക്ഷിച്ച് നല്ല രീതിയിൽ കറന്റ് ലാഭിക്കാൻ ഈ ഫാനിനെ കൊണ്ട് സാധിക്കുന്നുണ്ട് അത് പോലെ നല്ല രീതിയിൽ നല്ല സ്പീഡിൽ ഈ ഫാൻ കറങ്ങുന്നുണ്ട് നമ്മൾ പഴയ ഫാനിൻ്റെ മോട്ടോറിനെ അപേഷിച്ച് ഇരട്ടി സ്പീഡിലാണ് ഈ ഫാനിൻ്റെ മോട്ടറ് കറങ്ങുന്നത് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ റൂം മൊത്തം കൂളിംഗ് ആവും അതുപോലെ ഇതിന് ഹീറ്റിങ് കപ്പാസിറ്റി ഒക്കെ ഭയങ്കര കുറവാണ് ഹീറ്റിങ് ഒന്നും അങ്ങനെ ആവുന്നില്ല നമുക്കിപ്പോൾ ഈ ചെറിയ വില കൂടുതലാണെങ്കിലും ഒരു അഞ്ച് മാസം കൊണ്ടൊക്കെ നമുക്ക് ഈ ഫാനിൻ്റെ വിലയിൽനിന്ന് നമുക്ക് ഭയങ്കര ലാഭം കിട്ടും അതായത് നമ കരണ്ടിൻ്റെ യൂസേജ് കുറയുമ്പോൾ കരണ്ട് ബില്ലീന്ന് കിട്ടുന്ന ലാഭം അത് ഈ ഫാൻ ഉപയോഗിയ്ക്കുമ്പോൾ കരണ്ട് ബില്ലിൽ നല്ലപോലെ വ്യത്യാസം വരും അങ്ങനെ നമുക്ക് അത് ഭയങ്കരെ ലാഭം ആയിട്ട് മാറും കുറച്ച് പൈസ കൊടുത്ത് മേടിച്ചാലും അത് നമുക്ക് കരണ്ടിന്റെയുപയോഗം കുറയ്ക്കാൻ നല്ല പോലെ പറ്റും പിന്നെ ഭയങ്കര ഡിസൈനും കാര്യങ്ങളൊക്കെ നല്ലൊരു ലുക്ക് ഷൈനിങ് ലുക്ക് ആൻഡ് ഷൈനി ആയിട്ടുള്ളൊരു ഫാനാണ് നമുക്കിപ്പോൾ വീട്ടിൻ്റെ ഹാളിലൊക്കെ ഇടാം നല്ലൊരു ഫാൻ തന്നെയാണിത് അതുപോലെ ഇത് നമുക്ക് റിമോട്ട് വെച്ചിട്ടൊക്കെ കണ്ട്രോള് ചെയ്യാം അപ്പോൾ റെഗുലേറ്ററിൻ്റെ ആവശ്യം ഇല്ല നമ്മളിപ്പോൾ ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സോഫയിലിരുന്ന് ടി വി കണ്ടുകൊണ്ടിരിയ്ക്കണ സമയത്ത് നമുക്ക് സ്പീഡ് അഡ്ജെസ്റ് ചെയ്യാൻ വേണ്ടീട്ട് നമ്മൾ എഴുന്നേറ്റ് പോയി സ്വിച്ച് ബോർഡിൻ്റടുത്ത് വരെ പോകേണ്ട ആവശ്യം ഒന്നുമില്ല നമുക്കിതിൽ റിമോട്ട് വെച്ച് സ്പീഡ് കണ്ട്രോള് ചെയ്യുകയൊക്കെ ചെയ്യാം അതുപോലെ വോയിസ് കമൻട്സ് വെച്ച് നമുക്ക് തന്നെ സ്പീഡ് കണ്ട്രോള് ചെയ്യാനൊക്കെ പറ്റും അലക്സ പോലുള്ളതൊക്കെ യൂസ് ചെയ്യാം ഇത് ഭയങ്കര വെർത്ത് ആയി തോന്നി നല്ലൊരു ഫാനാണിത് എല്ലാവരും ഇങ്ങനത്തെ ഫാൻ വാങ്ങി ഉപയോഗിയ്ക്കുന്നത് നന്നായിരിക്കും